ഹലോ പറയൂ ഹലോ കേൾക്കുന്നുണ്ട് മാഡം പറഞ്ഞോളൂ അതെ അതെ ലേഡി മാനേജർ ആണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ ആ ആ ഞാൻ പറഞ്ഞ് തരാം ആ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോൺ ഉപയോഗിക്കുന്നതെന്ന് പറയാമോ ഓക്കെ എത്ര എമൗണ്ട് ആണ് വേണ്ടത് ആയിക്കോട്ടെ ഇവിടെ അക്കൗണ്ട് ഉണ്ടോ ന നിങ്ങൾക്കിവിടെ അക്കൗണ്ട് ഉണ്ടോ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഇത് ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാങ്ക് ഇതിൽ നമുക്ക് തരാൻ പറ്റുമോ ലോൺ തരാൻ പറ്റുമോ എന്നുള്ളത് ക്രെഡിറ്റ് സ്കോർ ഒന്ന് നോക്കണം മാഡം പിന്നെ നിങ്ങൾ എത്ര ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഇത് വേണ്ടത് അതായത് നമ്മളിപ്പോൾ ഈ ധനകാര്യ ഇത് അവസാനിക്കുന്ന ഒരു മാസമാണ് ഓഡിറ്റിൻ്റെ സമയമാണ് ബാങ്കിൽ അപ്പോൾ ഒന്നാം തീയതി മുതലാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും അപ്പോൾ നിങ്ങൾ ഒന്നാം തീയതി വരണം വരുന്ന സമയത്ത് ആ ആധാർ അതുപോലെ പാൻ കാർഡ് പാസ്ബുക്ക് പിന്നെ നമ്മളൊരു ഫോം ആപ്ലി ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾ ഒന്നാം തീയതി അതായത് തിങ്കളാഴ്ച ബാങ്കിലോട്ട് വരുക

ആ നമ്മൾ ഇവിടെ ബാങ്കിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഫോം തരാം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാത്തിൻ്റെയും കോപ്പിയും ഒറിജിനലും കയ്യിൽ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ബാങ്കിലോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മളൊരു ഫോം തരാം ആ ഫോം ഫിൽ ചെയ്ത് തന്നാൽ മതി അതിൽ ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് തരുന്നതാണ് അതിന് മുൻപ് ഈ അക്കൗണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അതിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണമായിരിക്കും ഉം അപ്പോൾ ആദ്യം നമുക്കത് നോക്കാം തിങ്കളാഴ്ച വന്ന് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്ത് നിങ്ങളുടെ അത്യാവശ്യം വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി ഒക്കെ തന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോണിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആ അതെല്ലാം ഞാൻ നേരിട്ട് പറയാം നമുക്ക് ഫോണിലൂടെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഓരോ എമൗണ്ടിനനുസരിച്ചും ഓരോ നിങ്ങൾ അതിൻ്റെ ഇൻ്ററസ്റ്റ് അടയ്ക്കുന്നതിൻ്റെതും ഓരോന്നായിരിക്കും അപ്പോൾ അതെല്ലാം പല പാക്കേജുകളുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് തിങ്കളാഴ്ച എന്തായാലും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ബാങ്കിലേക്ക് വരൂ അപ്പോൾ നമ്മുടെ തിരക്കാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇന്നത്തോടെ അവസാനിക്കും പിന്നെ രണ്ട് ദിവസം മുടക്കമാണല്ലോ അപ്പോൾ പിന്നെ ഒന്നാം തീയതി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും അപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ തന്നെ എൻ്റെ അസിസ്റ്റൻറ് ഉണ്ടായിരിക്കും അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് വയ്ക്കാം എന്തായാലും ബാങ്ക് ഓപ്പൺ ആവുന്നത് ഒമ്പതരയ്ക്ക് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒമ്പതര ടു പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുവാണെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ